ന്യൂസ് ത്രഡ് ആണ് കോഴിക്കോട് മുക്കം

അത് മൊബൈല് ഏത് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടീട്ട് ആയിരുന്നു ആ അതെ ആ റേറ്റ് എന്താണ് ആ ഫോണിന് ആ ആ ഓപ്പോ പന്ത്രണ്ടായിരം

ആ എത്ര ആണ് മാസം മാസമാണോ

ആ ഓക്കെ ഓക്കെ ആ സാംസംഗ് എത്ര ആണ് ആ ആ ആ ആയിക്കോട്ടെ മുക്കം

ആ ആയിക്കോട്ടെ ആ ആ ആ ആയിക്കോട്ടെ